എനിക്ക് ഏകദേശം എല്ലാ ചെടികളും ഇഷ്ടമാണ് ചെടികളെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഇഷ്ടം ഈ ഇലച്ചെടികൾ കാര്യങ്ങളൊക്കെയാണ് അതായത് ഇലച്ചെടി ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിലും ഇലച്ചെടികളൊക്കെയാണുള്ളത് കൂടുതലും വളർത്തുന്നത് ഇലച്ചെടി അല്ലാണ്ട് പൂവുള്ളതും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് എപ്പോഴൊന്നും പൂ ഉണ്ടാവില്ലല്ലോ പിന്നേ പൂവുള്ള മറ്റേ പ്ലേറ്റ് ചെടി പിന്നേ റോസ് റോസൊക്കേ ഭയങ്കര ഇഷ്ടമാണ് റോസൊക്കേ ഇപ്പോൾ നിങ്ങൾക്ക് അതായത് ടൗണിലൊക്കേ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെടി ഒരു മുപ്പത് രൂപക്കൊക്കേ ചെടി അതായത് പൂവോടെ ഉള്ള ചെടി ഒക്കേ അതായത് വേരോടെ ഉള്ളത് നമുക്ക് തരും നമ്മൾ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം വളരും ചെയ്യും കേട്ടോ അത്യാവശ്യം നല്ലതാണു പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് കൂടുതലും ഞാൻ ഇലച്ചെടികളാണ് കൂടുതൽ യൂസ് ചെയ്യാറ് ഞാൻ എവിടെപ്പോയിട്ടുണ്ടെങ്കിലും ഇലച്ചെടിയാണ് കളക്ട് ചെയ്യാറ് പിന്നേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൂക്കളുള്ള ചെടികളൊക്കേ മേടിക്കുക അത് ആരുടേ വീട്ടിൽ നിന്നൊക്കേ ശേഖരിക്കാറുണ്ട് അതുപോലെത്തന്നേ പഴങ്ങളും പച്ചക്കറികളും പച്ചക്കറികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി തക്കാളിയൊക്കേ വീട്ടിൽ നട്ടിട്ടുണ്ട് തക്കാളി പയറ് അതായത് കുറ്റിപ്പയറ് അങ്ങനെയുള്ളതൊക്കേ വീട്ടിൽ നട്ടിട്ടുണ്ട് പിന്നെയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പഴങ്ങൾ പറഞ്ഞാൽ ഒരു റംബൂട്ടാൻ്റെ ചെറിയൊരു തയ്യുണ്ട് അതിപ്പോൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളൂ പിന്നേ സ്ഥലം നമുക്ക് കുറച്ച് കുറവുണ്ട് ടൗൺ ഏരിയ ആയതുകൊണ്ട് ഒരു ആറ് സെൻ്റ് സ്ഥലമുള്ളൂ നമുക്ക് നാലു സെൻ്റോളം നമുക്ക് വീട് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലത്താണ് ഇങ്ങനത്തേ കാര്യങ്ങളൊക്കേ ചെയ്യുന്നത് അപ്പം വലിയ വലിയ പഴങ്ങളുള്ള ചെടികളൊന്നും നമുക്ക് വളർത്താനുള്ളൊരു ഇതില്ല